ആ ആ ചേച്ചി ആ എവിടെ നിന്ന് എവിടെ നിന്നായിരുന്നു ഹലോ ആ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ആ ഹാ നമ്മൾ ഞാൻ മുമ്പേ ചോദിച്ചതേ നമ്മുടെ ആ നല്ല ധ്യാന കേന്ദ്രം ഇപ്പോൾ ഈ എന്നാ വയലാമണ്ണിലച്ചൻ്റെ ധ്യാനം ഇല്ലേ അത് എവിടെ ആയിരുന്നു ആ വായനാട്ടിലാണോ വയനാട് അല്ലേ ആ കോട്ടയത്ത് നിന്ന് ബസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒന്ന് ഇന്നാൾ അച്ഛൻ്റെ ഒരു ഇതിൽ കണ്ടായിരുന്നു കോട്ടയത്തു നിന്ന് ബസ്സ് ഉണ്ടെന്ന് അങ്ങോട്ട് അതെ ആ നല്ല ധ്യാനമാണ് തോന്നുന്നല്ലേ അതോ അട്ടപ്പാടിയാണോ അല്ല അല്ല ധ്യാനം നല്ലത് അട്ടപ്പാടിയിലെ ആണോ വയലാമണ്ണിലച്ഛൻ്റെ ആണോ

അഞ്ചരക്കുള്ളത് ആ എല്ലാ ദിവസം നല്ല നല്ല നല്ലതാണ് തോന്നുന്നത് അത് കേട്ടിട്ട് നല്ല അത് എങ്ങനെ ആ പത്ത് പത്ത് മിനിറ്റ് നിന്ന് ടോക്ക് ഈ എല്ലാ വെള്ളിയാഴ്ച ആണോ ആദ്യ വെള്ളിയാഴ്ച ആണോ എങ്ങനെ അതിൻ്റെ അറിയോ ആരെങ്കിലും എനിക്ക് ഇപ്പോൾ

ആദ്യ വെള്ളിയാഴ്ച ആണോ ആ ആ അങ്ങനെ ആണേ ഈ ആഴ്ച ഞാൻ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ൾ ദിവസം അയച്ച് തരുന്നത് മറ്റേ ഇവിടുത്തൊരു ചേച്ചിയാണ് എനിക്ക് അയച്ച് തരുന്നത് ഇത് ആ ചേച്ചിയോട് ചോദിച്ചാൽ അവർ പോയിട്ടുണ്ടായിരിക്കും ചിലപ്പം ഞാൻ അത് അവരോട് ചോദിച്ചാൽ ഓ മറ്റേ ബാംഗ്ലൂർ നടക്കുന്നതാണോ മൂന്ന് ദിവസത്തെ ധ്യാനം ആ അപ്പം ഈ ആഴ്ച്ച അപ്പം ഈ ആഴ്ച് പോയാൽ ഇവിടത്തെ ധ്യാനം പറ്റത്തില്ല അപ്പോൾ ആ അടുത്ത ആഴ്ച ചോദിച്ചിട്ട് ഞാൻ ആ ചേച്ചിയോട് ചോദിക്കാം നല്ല ധ്യാനമായിരിക്കും കേട്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു അപ്പം അത് കൂടുവാണെങ്കിൽ ഒരു നല്ല ഒരു ഇത് കിട്ടുമായിരുന്നു നേരത്തെ ധ്യാനം കൂടിയിട്ടുണ്ടോ ആ ഞാൻ ഭരണങ്ങാനത്ത് കൂടിയിട്ടുണ്ട് പിന്നെ പരിയാരത്ത് കൂടിയിട്ടുണ്ട് തൂവാനിസാൽ കാണക്കാരി കാണക്കാരി അല്ലേ ആ അതും നല്ലതായിരുന്നു ഭരണങ്ങാനത്ത് കൂടിയതും നല്ലതായിരുന്നു എനിക്ക് പക്ഷെ ഈ വയലമണ്ണിലച്ഛൻ്റെ ധ്യാനം കൂടണം എന്നുണ്ട് ഇല്ലേ പിന്നെ അട്ടപ്പാടിയിൽ പോകണം വയലമണ്ണിലച്ഛൻ്റെ സഹ്യ ആ ഇത് തന്നെയാണ് വയലമണ്ണിലച്ഛൻ്റെ ചോദിക്കാം അപ്പോൾ അടുത്ത ആഴ്ച ഫ്രീ ആവുമോ അടുത്ത ആഴ്ച എന്നാ എന്നത്തേക്ക് അപ്പം ഓഫീസിന്ന് അവധി കിട്ടുമോ അപ്പം ആ ധ്യാനത്തിന് പോവാനാണെന്ന് ധ്യാനത്തിന് പോവാൻ ധ്യാനത്തിന് പോവാനാണെന്ന് പറഞ്ഞാൽ അവധി കിട്ടുമായിരിക്കും അല്ലേ കുഴപ്പമില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യണം ബസ്സും ബസ്സിനും ബുക്ക് ചെയ്യണം ആ ഓരേ പിള്ളേരേയും കൂടെ കൂട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അവരൂം കൂടെ കൂടട്ടെ അല്ലേ അവരൂം കൂടെ കൂടുന്നതല്ലേ നല്ലത് ആ എന്നാൽ ശരി അപ്പോൾ അടുത്ത ആഴ്ച വയലമണ്ണിലച്ഛൻ്റെ ധ്യാനം കൂടാം ഓക്കേ എന്നാൽ ബുക്ക് ചെയ്യാം ഞാൻ ഓക്കേ ശരി എന്നാൽ ഞാൻ വിളിക്കാം